മലയാളത്തിലെ ഭാഷ ഭേദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ചില കാര്യങ്ങളെക്കെ പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പം മലയാളത്തിൽ ഓരോ ഇല്ല പ്രാദേശികമായിട്ടും ഒരോ തരത്തിലുള്ള സംഭാഷണ ശൈലിയാണ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് കോമഡി കലർന്ന സംസാരരീതി ആണ് ഉള്ളതെങ്കിൽ കൊല്ലത്തേക്ക് വരുമ്പം കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണ രീതിയാണ് ഉള്ളത് ആലപ്പുഴയിലേക്കും എക്കെ ഒരു കൊല്ലവും ആലപ്പുഴയും എക്കെ ഏകദേശമൊക്കെ ഒരേ നിലവാരം നിൽക്കും പക്ഷേ തീര മേഖലയിലേക്ക് പോവുമ്പോളല്പം വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ പ്രകടമായ വ്യത്യാസം കാണാവുന്നത് അല്ലെങ്കിൽ അച്ചടി ഭാഷയിൽ തന്നെ സംസാരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ആൾക്കാരാണ് കുറച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക് ഒക്കെ പോകുമ്പോൾ വലിയ വ്യത്യാസമായ പ്രാദേശിക വ്യത്യാസങ്ങളവിടെ കാണാൻ സാധിക്കുന്നു കോഴിക്കോട് ഭാഗത്തും മലബാർ ഭാഗത്തും അതോടൊപ്പം തന്നെ കാസർഗോഡ് പോകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കന്നഡ കലർന്ന ഭാഷ രീതികളാണ് അപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ എല്ലാ ജില്ലകളിലും അവരുടേതായിട്ടുള്ള ഭാഷ തനിമകൾ ആയിട്ടുള്ള ഭാഷ വിഷയങ്ങൾ ഉണ്ട് ഭാഷകളുണ്ട് അത് എങ്കിൽ തന്നെയും കമ്മ്യൂണിക്കേഷനകത്ത് അതെല്ലാം ഉപയോഗപ്പെടുത്തുമ്പോൾ പരസ്പരം ആൾക്കാർക്കത് മനസ്സിലാവുകയും ചെയ്യുന്ന അതാണ് ഓക്കേ